ഈ അവധിക്കാല സമയത്ത് ഒരു വിദേശ യാത്രയ്ക്കുള്ള പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എല്ലാവരേയും പാസ്പോർട്ടുകൾ റെഡിയാണ് കാലാവധിയുള്ളതാണ് പുതുക്കേണ്ടതായിട്ടുള്ളത് ഉടനെ പുതുക്കേണ്ടതായ പാസ്പോർട്ടുകളൊന്നും തന്നെ ഇല്ല എന്നാൽ വളരെ ആവേശത്തോടെ ആകാംക്ഷയോടെയാണ് ഈ അവധിക്കാലം വിദേശത്ത് ഒരു യാത്ര നടത്താമെന്ന് തീരുമാനിച്ചത് പാസ്പോർട്ടിൻ്റെ സ്റ്റാറ്റസും അതിൻ്റെ ആവശ്യകതയും യാത്രക്കുള്ള എല്ലാ ക്രമത്തിലാണെന്ന് നല്ല ഉറപ്പുണ്ട് എല്ലാം റെഡിയാണ് എല്ലാം ശരിയാക്കി വച്ചിരിക്കുകയാണ് അധികം താമസിയാതെ വിദേശയാത്ര കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു